ആ അതേ ഓക്കേ നിങ്ങളെന്തെങ്കിലും പുറത്തൂന്ന് ഫുഡ്ഡ് കഴിക്കുവോ അങ്ങനെ വയറ്റിന് പിടിക്കാത്തത് എന്തെങ്കിലും കഴിക്കുവോ അങ്ങനെന്തെങ്കിലും ചെയ്തായിരുന്നോ

ഓക്കേ അതായത് ഇപ്പയീ മൂന്നാലഞ്ച് ദിവസമായിട്ടാണോ വേദന അതോ ഇതിന് മുൻപ് ഇങ്ങനെ വയർ വേദന എടുത്തിട്ടുണ്ടോ അപ്പം നിങ്ങടെയീ ഫുഡ്ഡിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഈ അച്ചാർ പുളിയൊക്കേ കൂടുതൽ കഴിക്കുന്നയാളാണോ അത് കുഴപ്പമില്ല അതായത് കൃത്യം നേരത്ത് അതായത് ലഞ്ച് ബ്രേക്ക് ഫാസ്റ്റ് ഡിന്നറൊക്കേ കൃത്യം നേരത്ത് തന്നെയാണോ കഴിക്കുക അതോ കഴിക്കാതെ വിട്ടു പോകുന്ന ഒരിതുണ്ടോ ഓക്കേ ഓക്കേ അപ്പം നിങ്ങൾക്ക് ഭയങ്കര വയർ വേദന മാത്രവാണോ വേറെ വല്ല ബുദ്ധിമുട്ടും അങ്ങനെ എന്തേലുമുണ്ടോ ഓക്കേ ഈ ഗ്യാസ് വരുന്നത് നമ്മൾ കൃത്യ സമയത്ത് ഫുഡ്ഡ് കഴിക്കാത്ത കൊണ്ടൊക്കെയാണ് ഗ്യാസ് വരുന്നത് അപ്പം കൃത്യ സമയത്ത് ഓക്കേ ആ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഞാൻ പിന്നെ മരുന്നെഴുതാം അത് കഴിഞ്ഞിട്ട് വയറ് വേദനയാണെ നിങ്ങളൊരു കാര്യം ചെയ്യ് ഈ അപ്പെൻറ്റീസിൻറ്റെ ടെസ്റ്റൊന്ന് ചെയ്ത് നോക്ക് അപ്പെൻഡീസുണ്ടെങ്കിൽ ഇങ്ങനെ വയറ് വേദനയുണ്ടാകും

അതായാലും ആ അത് അതന്നെയല്ലേ ഏകദേശം അങ്ങനെതന്നെ വരുന്നത് നമ്മളീ പിന്നെ പുളി എണ്ണാ പിന്നെ അച്ചാറൊക്കേ കൂടുതൽ കഴിക്കുമ്പോഴാണ് ഈ അപ്പൻണ്ടീസ് അത് കൂടുതൽ വരുന്നത് അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യ് ആ എന്തായാലും മരുന്ന് തരാം നെഞ്ചെരിച്ചിലിനൊക്കെയുള്ള ഗാസിൻറ്റെയും മരുന്ന് തരാം അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് കുറഞ്ഞില്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുവല്ലോ അല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ എന്തിൻറ്റെയാന്ന് അറിയാൻ പറ്റും

അങ്ങനെയുണ്ടല്ലേ അപ്പം തണുത്തതൊന്നും കഴിക്കാൻ പറ്റുന്നില്ലാന്നാണോ പറഞ്ഞ് വരുന്നത് ഓക്കേ ഭയങ്കര വേദനയാണോ ഓക്കേ ഓക്കേ നമുക്ക് ഒന്ന് നോക്കി നോക്കാം നമുക്ക് സ്റ്റോണുണ്ടെങ്കിലും വയർ വേദന എടുക്കൂട്ടോ കിഡ്നി സ്റ്റോണുണ്ടെങ്കിലും ഭയങ്കര വയറ് വേദന എടുക്കും നമുക്ക്

ആ അതെ നിങ്ങൾ വെള്ളം നന്നായി കുടിക്കുക എന്നിട്ടേ ഇപ്പം മരുന്ന് തരാം എന്നിട്ടൊരു കാര്യം ചെയ്യു എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോരൂ അപ്പം നമുക്ക് എന്താന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും സ്റ്റോണുണ്ടെങ്കിലും വയർ വേദന എടുക്കും നമുക്ക് നല്ല നല്ല വയർ വേദന ആയിരിക്കും നമുക്ക് വിചാരിക്കുന്ന പോലൊന്നും ആയിരിക്കില്ല നല്ല പെയിൻഫുള്ളായിരിക്കും എനിക്ക് ഏകദേശം തോന്നുന്നത് അങ്ങനെ ആയിരിക്കാനാണ് ചാൻസ് അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യൂ എന്തായാലും പിന്നെ ടെസ്റ്റ് ചെയ്തിട്ട് പോര് എത്രയും വേഗം ടെസ്റ്റ് ചെയ്തിട്ട് വരുവാണെങ്കിൽ ഓക്കേ ശരി എന്നാൽ എന്നാൽ ശരി